നമ്മളെ പോലെയുള്ള എല്ലാ മനുഷ്യന്മാരും പ്ലാസ്റ്റിക് പുഴകളിലും നദികളിലും വയലുകളിലും എല്ലാം വലിച്ച് എറിഞ്ഞിട്ട് അവിടുത്തെ പരിസ്ഥിതി മലിനീകരണം മലിനീകരണമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളെ പോലെ നമ്മൾ ഓരോരുത്തർ വിചാരിച്ചാൽ ഈ ഭുമിയെ നമുക്ക് നല്ല ഒരു ഭൂമിയായി പുനര പുനരാരംഭിക്കാം നമ്മളെ ഓരോരുത്തരും പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിൽ വരുന്ന മറ്റേ പ്ലാസ്റ്റിക് പെറുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് അങ്ങനെ മാത്രം പ്ലാസ്റ്റിക് ഉപയോഗിക്കുക അല്ലാതെ ഓരോ വയലും ഓരോ വീട്ടു വീട്ടുവളപ്പിലും വയലുകളിലും ഒന്നും പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഓ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് ആക്കിയിട്ട് ഹരിതകർമ്മസേന എന്ന ഇതിന്റകത്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളേതായിട്ട് നമ്മളെ രക്ഷിക്കുക പിന്നീട് പ്ലാസ്റ്റിക്കിനെ കുറിച്ചു പറഞ്ഞാൽ വേറെ ഒന്നും അനക്ക് ഇല്ല